എനിക്ക് എന്ന് വെച്ചാൽ മൃഗങ്ങളോട് നല്ല സഹകരണമുണ്ട് എനിക്കും മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്നുവച്ചാൽ ഈ പട്ടി പൂച്ച അതുപോലെയുള്ള മൃഗങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അവർക്ക് പേരുണ്ടോ എന്ന് ചോദിച്ചാൽ ലൂണ പിന്നെ ഡയാന അങ്ങനെ നിസ അങ്ങനെ കുറേ പേരൊക്കെയുണ്ട് എനിക്ക് വെച്ചാൽ മൃഗങ്ങളോട് പ്രത്യേക ഇഷ്ടമാണ് ഞങ്ങൾ തമ്മിൽ സഹകരണം എന്നു വെച്ചാൽ ഭയങ്കരമാണ് എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വരുവാണെങ്കിൽ തന്നെ ഇപ്പോൾ വീട്ടിൽ ഡോഗ് ഒക്കെയുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെ ഡോഗ് ഇങ്ങനെ ഓടി വരുവൊക്കെ ചെയ്യും എന്റെ അടുത്തോട്ടൊക്കെ എന്താണ് പറയുക ഞങ്ങൾ അത്രമാത്രം ഭയങ്കരമായിട്ടും ഭയങ്കര ബന്ധം ആണ് ഞങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മൃഗം ആണെങ്കിൽ തന്നെ മനുഷ്യന്മാരുടെ കറക്റ്റ് സ്വഭാവം കാര്യങ്ങളൊക്കെ മനുഷ്യന്മാരേക്കാളും ഒക്കെ സ്നേഹമൊക്കെയുണ്ട് മൃഗക്ക് മൃഗങ്ങൾക്ക് എന്നു പറഞ്ഞത് സ കറക്റ്റ് ആണ് മാത്രമല്ല നമ്മൾ ഇപ്പോൾ എവിടെ പോയാലും എവിടെ പോയിട്ട് തിരിച്ച് വന്നാലും അപ്പം ഓടിവരും എവിടെയാണെങ്കിലും അതുകൊണ്ട് അങ്ങനെ നമ്മൾ തമ്മിൽ ആത്മബന്ധമുണ്ട് മൃഗങ്ങളും ഞാനും തമ്മിൽ അതുകൊണ്ടാണങ്കിൽ മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ആ മൃഗങ്ങൾക്ക് എന്നോടുള്ള സഹകരണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സഹകരണമാണ് എന്നെ കണ്ടാൽ ചാടി ഓടി വരിക കളിക്കാനും എല്ലാത്തിനും ഇങ്ങനെ കൂടും എന്നുള്ളതാണ് അതോണ്ടെനിക്ക് മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്